ഹലോ ഗുഡ് ആഫ്റ്റര്നൂൺ ആ സിമെന്റിന്റെ സ്റ്റോർ അല്ലേ ആ ഞാന് മലപ്പുറത്തു നിന്നായിരുന്നു ആ ഞാനിപ്പോള് വീട് പണി നടക്കുകയാണ് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണിപ്പോള് അപ്പോള് അതിന് സിമെൻറ് വേണം അപ്പോള് കടയില് ഏതൊക്കെ സിമെൻറുണ്ട് ഇപ്പോള് അതിപ്പഴൊരു മുന്നൂറ്റിയൻപത് ഒരു നാന്നൂറ് ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക

അങ്ങനെയുണ്ടല്ലേ പതിനായിരം പതിനായിരം ആ നാന്നൂറൊക്കെയല്ലേ ഒരു ഇതിന് അപ്പോള് നമുക്കിപ്പോള് ബൾക്കായിട്ട് അതായതൊരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ വേണ്ടി വരും അപ്പോള് ഡിസ്കൗണ്ട് കിട്ടുമോ അഞ്ഞൂറ് ചാക്കെടുക്കാം ആ അതെയല്ലേ അപ്പോള് എങ്ങനെയാണ് ഡെലിവറിയുണ്ടോ എവിടെയാണ് ഇപ്പം എവിടെയാണ് മേലാറ്റൂരാണല്ലേ ആ അപ്പോള് കടയില് വന്നുനോക്കാന്നൊക്കെ പറ്റില്ലെ ഇങ്ങനെയൊക്കെ കടയില് വന്ന് വാങ്ങാമല്ലേ ഈ മേലാറ്റൂര് എവിടെയാണ് ആ അവിടെ പേരെന്താണ് കടയുടെ കേരളാ സിമെൻസ് ആ അപ്പോള് ഞങ്ങള്ക്കിപ്പോള് എന്താണ് ഒരു പത്താം തീയതി പതിനഞ്ചാം തീയതിക്കാണ് പണി തുടങ്ങേണ്ടത് അപ്പോള് അന്നേരമത് എത്തില്ലേ പതിനഞ്ചാം തീയതിക്ക് ആ ഞാന് അപ്പോള് ഞാന് നാളെയോ മറ്റന്നാളോ മേലാറ്റൂർക്ക് വരുന്നുണ്ട് അപ്പോള് അവിടെയൊന്ന് കയറിക്കണ്ട് ഓക്കെ എന്നുപറയാം ആ എന്നാല് പിന്നെ ഞാന് നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരാം എന്നാല് ഓക്കെ ആ ഓക്കെ